അത് ഒരു വയറിളക്കത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് ഇപ്പോൾ വയറിളകി ക്ഷീണിച്ച് കിടക്കുന്ന ഒരു വ്യക്തിക്ക് ഏറ്റവും ജലാംശം നഷ്ടപ്പെടുവാണല്ലോ വയറിളക്കം എന്ന് പറയുന്നത് ഏ അപ്പോൾ വയറിളക്കം നഷ്ടപ്പെടുന്ന വയറിളക്കത്തിലൂടെ നഷ്ടപ്പെടുന്ന ജലാംശം വീണ്ടെടുക്കാനായിട്ട് കരിക്കിൻ വെള്ളം പ്രയോജനപ്പെടും ഏറ്റവും ഏറ്റവും നല്ല നാട്ടുവൈദ്യ ചികി ചികിത്സ എന്ന് പറയുന്നത് ഈ കടുംചായക്കകത്ത് അരമുറി ഒരു മുറി ഒരു മുറി അല്ല അര മുറി നാരങ്ങ പിഴിഞ്ഞ് മൂന്ന് നേരം വെള്ളം കൊടുക്കുക തന്നെയാണ് വയറിളക്കത്തെ ഒര് പരിധി വരെ ഒക്കെ നമുക്ക് പിടിച്ച് നിൽക്കാൻ പറ്റും അതുപോലെ തന്നെ വേറെ എന്നാ എന്ന് ചോദിച്ചാൽ അന്നേരം ഇപ്പം വയറിളക്കം എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ചൂടുവെള്ളം ചെറു ചൂടുവെള്ളം ഒക്കെ ഡെയിലി എപ്പോഴും എപ്പോഴും ചൂടുവെള്ളം തന്നെ കുടിക്കുക പച്ച വെള്ളത്തിൽ പച്ചവെള്ളം കുടിക്കാതെ തിളപ്പിച്ചാറിയ വെള്ളം വെള്ളം തന്നെ കുടിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം